വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ നിങ്ങൾ വളയും എന്നുള്ള കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വാചകമാണ് എൻ്റെ ഓർമയിൽ വരുന്നത് പത്രം വായന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏറ്റവും ആവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അനുദിനജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മൾ പത്രം വായനയിലൂടെ തന്നെ അറിയണം ഒരുപാട് നമ്മൾക്ക്

നമ്മൾക്ക് ജനറൽ നോളേജ് ഒക്കെ കിട്ടണമെങ്കിൽ പത്രം വായനതന്നെ അത്യവശ്യമാണ് കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് ജനറൽ നോളേജ് പി എസ് സി പോലുള്ള പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ അവര് ചോദിക്കുന്നത് പിന്നെ ജനറൽ നോളേജ് കൊസ്റ്റിൻസ് ആണ് അത് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുട്ടികളേ പത്രം വായിക്കാൻ പ്രോത്സാഹിപ്പിക്കണം അത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനുമുന്നേ കഴിവതും പത്രം വായിക്കണം വായിച്ചിട്ടുതന്നെ കഴിവതും സ്കൂളിൽ കുട്ടികളെ വിടാൻ ശ്രമിക്കുക കാരണം കുട്ടികൾക്കും മലയാളത്തിലെ അക്ഷരങ്ങൾ സ്പുടതയാകാനും ഒക്കെ പത്രം വായന ഏറ്റവും സഹായകരമാണ് അതിന് മാതാപിതാക്കൾ തന്നെ അതിന് ശ്രദ്ധിക്കണം സ്കൂളിലാണെങ്കിലും പത്രം വരുത്തി കുട്ടികളെ ഏതെങ്കിലും ഒരു പീരീഡ് കുട്ടികൾക്ക് പത്രം വായിക്കാനായി ആഴ്ചയിൽ കൊടുക്കണം അതൊക്കെ ഏറ്റവും ആവശ്യകരമായ കാര്യങ്ങളാണ് കുട്ടികൾക്ക് അറിവ് നേടാൻ ഏറ്റവും നല്ല മാർഗ്ഗം പത്ര വായനയാണ് ഇപ്പോൾ കുടുതലും കുട്ടികൾ മൊബൈലും മറ്റും യൂസ് ചെയ്യുന്നതുകൊണ്ട് വായനാശീലം എല്ലാവർക്കും കുറവാണ് കുറഞ്ഞത് പത്രം എങ്കിലും വായിക്കാൻ അവരെ ശീലിപ്പിക്കുന്നത് മാതാപിതാക്കളും ടീച്ചേഴ്സും അതിനുവേണ്ടി ശ്രദ്ധിക്കണം കാരണം പത്ര വായന വായനയെങ്കിലുമില്ലെങ്കിൽ കുട്ടികളുടെ വായനാശീലം അങ്ങ് മാറും അതില്ലാതെ പോകും അത് നമ്മൾക്ക് ഒരുപാട് ദോഷംചെയ്യും കുട്ടികൾ മൊബൈലിൽ കൂടെ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ടാകും നമ്മുടെ സമൂഹത്തിനുണ്ടാകും അതെല്ലാം ഒഴിവാക്കാനായി നമ്മള് വായനാശീലം കുട്ടികളിൽ വളർത്തണം അതിന് ആദ്യം തന്നെ പത്രവായനയെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യണം കുട്ടികളേം കൊണ്ട് നമ്മള് വായിച്ച് നമ്മള് അത് മനസിലാക്കിയെടുക്കാൻ ശ്രമിക്കണം കുട്ടികളായാലും മുതിർന്നവരായാലും എന്നും പത്രം വായിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം അതിന് നമ്മള് ഏറ്റവും ശ്രദ്ധിക്കണം മുതിർന്നവരായാലും ദിവസവും പത്രം വായിച്ച് അറിവ് നേടാനും അതിലേ എല്ലാ കാര്യങ്ങളും അറിയാനും ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് നമ്മൾക്ക് കുട്ടികൾക്ക് ഏറ്റവും വിജ്ഞാനം പകരാനും ഏറ്റവും നല്ല മേഖലയാണ് പത്രം വായന നമ്മളുടെ കുട്ടികൾ പരീക്ഷകളിൽ ഒക്കെ ഉന്നത വിജയം നേടാൻ ഒരുപാട് അറിവ് നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് പത്രവായന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടന്ന് തന്നെ അറിയാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണത് അതിനായി നമ്മള് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം നമ്മളവർക്ക് പ്രായമായവർക്ക് വായിക്കാൻ പറ്റാത്തവർക്ക് വായിച്ചുകൊടുക്കാനുമൊക്കെ നമ്മള് ശ്രമിച്ചു ശ്രമിക്കണം എല്ലാവർക്കൊരു നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരു ബോധവൽക്കരണമുണ്ടാകാൻ ഇത് നല്ലതാണ് ഏറ്റവും നല്ല മാർഗ്ഗമാണ്

വിട്ടുപോയിരിക്കുന്നു കാരണം എല്ലാവരും മൊബൈൽ എന്ന ഒരു സംഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു

ജനറൽ നോളേജ് ഇല്ല ഒരു കാര്യത്തെക്കുറിച്ചും പൊതുവായ ഒരറിവോ വായനാശീലം കുറയുന്നതിലൂടെയില്ലാ പണ്ടൊക്കെ എല്ലാവരും ലൈബ്രറികളിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കുകയും ഒരുപാട് നോവലുകളൊക്കെ വായിച്ച് ഒരുപാട് അറിവുകള് നേടുമായിരുന്നു ഇപ്പോളതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അയിനുവേണ്ടി ആരും ശ്രമിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായിട്ട് കാണുന്നത് ഏറ്റവും കുറഞ്ഞത് പത്രവായന തന്നെ കുട്ടികൾക്ക് ഒരു ശീലമാക്കുക അതിലൂടെ അവര് മറ്റ് പുസ്തകങ്ങൾ വായിക്കാനുമൊക്ക നമക്ക് അവർക്ക് അവരെ നമക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് ഏറ്റവും നല്ലത് പത്രവായന തന്നെയാണ് അതിനു നമ്മള് ഇംപോർട്ടൻ്റ് കൊടുക്കുക അത് രാവിലെയായാലും സ്കൂളിൽ നിന്നും വന്ന് കഴിഞ്ഞാലും കുട്ടികൾ അത് വായിക്കുന്നുണ്ടോന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം വായിച്ചെന്ന് ഉറപ്പുവരുത്തണം അല്ലേ അതേകുറിച്ച് ഒരു ചർച്ച നടത്തണം ആ ചർച്ച നമ്മുടെ വീടുകളിൽ ഒരു ദിവസത്തെ പത്രം വായിച്ചുകിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മള് സംസാരിക്കണം കുടുംബങ്ങളിലൊക്കെ സംസാരവിഷയം ഇല്ലാ സംസാരത്തിന് ഒരുവിഷയം ഇല്ലാതെ പോകുന്നതാണ് കാരണം പത്രം വായിക്കുന്നതിലൂടെ നമ്മൾ രാഷ്ട്രീയപരമായും ബിസിനസ് പരമായും സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടും അപ്പം നമ്മള് കുടുംബ ബന്ധങ്ങൾക്ക് അത് പ്രയോജനകരമാകും എല്ലാവരും കൂടി ഒരു ചർച്ച ചെയ്യുക അതേകുറിച്ചൊരു അറിവ് നേടുകയും ചെയ്യാൻ പറ്റും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും പത്രം വായിക്കുന്നതിന് കുട്ടികളേയും പ്രോത്സാഹിപ്പിക്കുക നമ്മളും വായിച്ചു അറിവ് നേടാനുള്ള ശ്രമം നടത്തുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായി കണക്കാ കണക്കിലെടുക്കുക